ആ അതെ പറഞ്ഞോളു ആ ഓക്കെ പറഞ്ഞോളൂ മാഡം നമുക്ക് മാഡത്തിൻ്റെ പാൻ കാർഡും പിന്നെ ആധാർ കാർഡും മതിയാവും ഒന്നര ലക്ഷം രൂപയ്ക്കോ നമ്മളിപ്പോൾ മുപ്പത്തി ഏഴ് ഇരുന്നൂറു വെച്ചാണ് പവന് കൊടുക്കുന്നത് അപ്പോൾ മാഡം എന്തോരമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര ഏകദേശം എന്തോരം ഉണ്ടാവും മാഡത്തിൻ്റെ കയ്യിൽ ഗോൾഡ് നാലേ കാൽ പവൻ അല്ലെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഒന്നരേൻ്റെ അടുത്ത് കിട്ടാൻ ചാൻസില്ല മാഡം വേറെ എന്തേലും സംരംഭം തുടങ്ങാൻ അങ്ങനെ എന്തിനേലും ആണോ മാഡം ക്യാഷ് നോക്കുന്നത് ഷോപ്പ് ഇടാനാണ് ആ ഓക്കെ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് വേണേൽ ലോൺ സെറ്റ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു ആ നാല് പോയിൻറ്റ് അടുത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ ഏകദേശം ചെയ്ത് തരാം പിന്നെ അത് അല്ലെങ്കിൽ നമുക്ക് സ്ഥലം വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്ഥലത്തിൻ്റെ നികുതി ചീട്ട് മാത്രം മതി പിന്നെ ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാനും ഒരാളെ കിട്ടിയാൽ മതി നമുക്ക് അങ്ങനെ വേണേൽ സ്ഥലം വെച്ചിട്ട് ചെയ്തത് തരാം ഇൻട്രസ്റ്റ് കുറവ് ഉണ്ടാവും ആ പിന്നെ സ്ഥലം സ്വന്തമായിട്ട് ഉള്ള ആളാണൊ മാഡത്തിന് ആ ഓക്കെ സ്ഥലം ഉണ്ട് ഏകദേശം ആഹ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് സ്ഥലത്തിൻ്റെ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് തരാം ആ നമ്മൾ സ്ഥലം വന്ന് നോക്കും പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് മെയിൻ ആയിട്ട് ഫൈവ് ടു സെവെൻ ഇയേർസ് വരെയാണ് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്ഥലത്തിൻ്റെ ഏകദേശം റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കീട്ട് നമ്മൾ അതിന് അനുസരിച്ച് ചെയ്ത് തരും അപ്പോൾ സ്ഥലം കൂടുതൽ ഉണ്ടോ ആ ഇറ്റ് ഈസ് ഓക്കെ കുഴപ്പമില്ല സ്ഥലം ആ നോക്കീട്ട് പറഞ്ഞാൽ മതി പിന്നെ മാഡത്തിന് അങ്ങനെ ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ഗോൾഡ് വെച്ചിട്ട് ആണെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വെച്ചിട്ട് ആണെങ്കിൽ ഫോർ പെർസെൻ്റെജ് ആണ് ഇന്ട്രെസ്റ് വരുന്നത് സ്ഥലം ആണെങ്കിൽ ഒരു ത്രീ പെർസെൻ്റെജ് ത്രീ പോയൻറ്റ് ഫൈവ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ആ മാഡം നോക്കീട്ട് എന്താണ് വെച്ചാൽ ചെയ്താൽ മതി ആ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി